ചോറ് ചോറ് മുക്കാൻ കലം ഉണ്ട് പിന്നെ ചായവെക്കാൻ ചായ ചായക്കലം ഉണ്ട് ദോശ ചുടാൻ ദോശ കല്ലുണ്ട് ചായ കുടിക്കാൻ ചായക്ക്ലാസ്ണ്ട് കറി വെക്കാൻ ചട്ടി ഉണ്ട് ചൂട് വെള്ളം കുടിക്കാൻ ഒരു പാത്രം ഉണ്ട് ചൂട് വെള്ളം വെക്കാനും പാത്രം ഉണ്ട് അതിന് ഗ്ലാസ്സൊണ്ട് പിന്നെ ചോറ് കോരാൻ തവി ഉണ്ട് കറി കോരാനും തവി ഉണ്ട്